ഹലോ

ആ ഡോക്ടറല്ലേ ആ എനിക്ക് ഒരു കുറച്ച് ഒരു കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലകറക്കം പോലെ തോന്നുന്നുണ്ടായിരുന്നു

ആ ഇപ്പം ഇടക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്

ഓ ഫുഡ് കഴിക്കാറുണ്ട് പിന്നെ ഇതിന് ഇപ്പോൾ ഒരാഴ്ച്ചയായി പനി ഉണ്ടായിരുന്നു അതിന് ശേഷമായിരുന്നു ഇങ്ങനെ തല കറങ്ങുന്നത് ആ കാണിച്ചതായിരുന്നു ഗവൺമെൻ്റിൽ തന്നെ

ആ ആ ഓക്കെ ആ ആ ഓക്കെ ഓക്കെ ഹോസ്പിറ്റലിൽ വരണോ പ്രഷറോ എന്തെങ്കിലും പ്രഷറ് നോക്കണമായിരുന്നു അങ്ങോട്ട് വരാൻ വന്നാൽ ഒന്ന് നോക്കുമോ ആണ് ആ ആ ഓക്കെ ആ ആ

ആ ആ ഓക്കെ ഇല്ല ഛർദ്ദി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല

ഇല്ല ഇപ്പം പനി കുറച്ച് കുറവുണ്ട് പനി കുറഞ്ഞ് പിന്നെ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ നേരമാണ് ഇങ്ങനെ തലകറക്കം തുടങ്ങിയത്

ഇല്ല ഇല്ല ഇല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല

ആ ആ

ആ ഓക്കെ ഓക്കെ എന്നാൽ നാളെ ഞാൻ അങ്ങോട്ട് വരാം ബുക്കിംഗ് വല്ലതും ഉണ്ടോ

ആ ഓക്കെ ഓക്കെ